ഹലോ ആ ഇത് കാൻറാ ബാങ്ക് മാനേജറല്ലെ ഇത് സുനിൽ കുമാറാണ് ഞാന് സാറെ എനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് നിങ്ങളെ ബാങ്കിൽ ആ അപ്പോൾ സാലറി ഇത് ഇതിൽ എൻ്റെ സാലറി അക്കൗണ്ട് നിങ്ങളെ അക്കൗണ്ടിൽ നിന്നാണ് ഉള്ളത് അപ്പോൾ നല്ല ട്രാൻസാക്ഷനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കൊരു പേസ്ണൽ ലോണിൻ്റെ അവശ്യം ആവശ്യമുണ്ടായിരുന്നു അതൊരു ഐറ്റം മേടിക്കാൻ വേണ്ടിയിട്ട് നെനക്ക് ഈ ക്യാമറേൻ്റെ ബിസ്സിനസുണ്ട് ഷൂട്ടിങിൻ്റെ അപ്പോൾ അതിൽ ലെൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു പേസ്ണൽ ലോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ സാറ് അത് ഇൻറസ്റ്റ് റേറ്റ് എത്രായാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ ഈ പേസ്ണല്ന് അതിൽ നിന്നും പേസൻറ്റേജ് ഉണ്ടോ എന്തെങ്കിലും കുറയ്ക്കാനനാ പറ്റുമോ ഇൻറസ്റ്റ് റേറ്റ്

ആ ഓക്കെ അത് ഞാൻ സംഘടിപ്പിച്ചിട്ട് വരാം പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രാം മാസത്തിൽ എനിക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ എമൗണ്ട് അല്ല എത്രാം മാസത്തിൽ എനിക്ക് ഇത് കിട്ടും എന്ന്

ലോണ് എത്ര മാസത്തിനുള്ളിൽ എനിക്ക് പാസാവുമെന്ന് പറയാൻ പറ്റുമോ ഒരു മാസത്തിനുള്ളിൽ പാസാവും പാസാവാൻ പറ്റുമോ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യാൻ പറ്റും അല്ലെ പിന്നൊരു ഡൗട്ടുള്ളത് ഇതിപ്പോൾ എത്ര വർഷത്തേക്ക് എനിക്ക് എത്ര എമൗണ്ട് വരെ കിട്ടും എനിക്ക് ആവശ്യമുള്ളത് ഒരു ലക്ഷമാണ് ഒരു ഒന്നര വരെ കിട്ടും തരാൻ പറ്റുമോ ഒന്ന് ഞാൻ എന്തായാലും ഞാൻ ഈ ഡോക്യുമെൻസെല്ലാം എടുത്തിട്ട് തിങ്കളാഴ്ച്ച ഞാൻ സാർനെ കാണാൻ വെരാം ആ ശരി ശരി ഓക്കെ അപ്പോൾ തിങ്കളാഴ്ച ഞാൻ വരാം ബാങ്കിൽ ശരി ശരി ഓക്കെ